ഹലോ സര് നമസ്ക്കാരം ഇത് ഇലകട്രിസിറ്റി ബോര്ഡിന്റെ സ്ലോട്ട് ഹോട്ട്ലൈന് അല്ലേ സര് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്നു പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് സര് ഞാന് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരാതി ബോധിപ്പിക്കാന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വീടിനു അടുത്തുള്ള ഒരു അയല്വാസി അദ്ദേഹം അദ്ദേഹത്തിന്റെ മീറ്ററിൽ നിന്ന് കൃത്രിമം കാണിക്കുന്നതായി ഞാന് കണ്ടിട്ടുണ്ടായിരുന്നു അത് തെറ്റായ ഒരു ബില്ലിംഗിലേക്കു നയിച്ചേക്കാം അതു റിപ്പോര്ട്ട് ചെയ്യാന് വേണ്ടി വിളിച്ചതായിരുന്നു സര് ഞാന് അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത് സ്ഥലത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് പറയുവാനാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് തിരുവല്ല എന്നു പറയുന്ന സ്ഥലത്താണ് ബോധന എന്ന് പേരു കേട്ട ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ അടുത്താണ് എന്റെ വീട് അദ്ദേഹം എന്റെ അയല്വാസിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇലക്ട്രിസിറ്റി കൃത്രിമം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു പക്ഷെ തെറ്റായ ഒരു ബില്ലിംഗിലേക്ക് നയിച്ചേക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് റിപ്പോര്ട്ട് ചെയ്യാന് വേണ്ടിയിട്ട് വിളിച്ചത് ഓക്കേ സര് ഓക്കെ സര് ഓക്കെ ഞാന് അത് അത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാന് നിങ്ങള്ക്ക് അയച്ചു തരാം സര് ഓക്കെ നന്ദി സര്